ഹലോ ഇത് ട്രാവൽ ഏജൻസി അല്ലേ അപ്പോൾ ഞങ്ങൾ വിളിച്ചത് എന്തിനാന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ടൂറിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു ഇപ്പം അത് രാവിലെ തന്നെ ഡ്രൈവർ എത്തേണ്ടതാണ് പക്ഷേ ഇതുവരെ അദ്ദേഹം എത്തീട്ടില്ല വിളിച്ചു ഞങ്ങൾ കുറെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യുന്നേയില്ല അപ്പോൾ ഞങ്ങൾ കുറെ പേർ ഒരു പത്ത് ഇരുപത് പേരുണ്ടായിരുന്നു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോവാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ലാഗ് അടിച്ചു നിക്കുവാണ് അപ്പം എന്തുകൊണ്ടാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് അറിയില്ല ഇന്നലെ കൂടെ വിളിച്ചിട്ട് ഞങ്ങളെ ഇന്ന ടൈം വരണം എന്നെല്ലാം പറഞ്ഞ എല്ലാം ഒക്കെ ആക്കി വെച്ചിരുന്നത് ആണ് പക്ഷേ അത് രാവിലെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നേയില്ല എന്താ കാരണം എന്നൊന്ന് നിങ്ങൾക്കേലും ഒന്ന് പറയാമായിരുന്നു അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ചു എന്തേലും സാഹചര്യങ്ങള് കൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും ഞങ്ങൾ പത്തിരുപത് പേരിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഉടനടി എന്തേലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കയാണ് നിങ്ങൾ ഇവിടുന്ന് ഒരു രാവിലെ അഞ്ച് മണിക്ക് നേരെ മൂന്നാറിലോട്ട് പോകാന് വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇതുവരെ ഫോൺ എടുക്കുന്നില്ലാത്തതിനെ തുടർന്ന് ഇപ്പത്തന്നെ ഏഴ് മണിയായി ഞങ്ങൾ ഇപ്പം വരുംന്നോർത്ത് കുറെ നേരം രണ്ട് മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് എന്നിട്ടും കിട്ടാത്തതിനെ തുടർന്നാണ് നിങ്ങൾ ഏജൻസിയിലോട്ട് ഞങ്ങളിപ്പോൾ വിളിക്കുന്നത് അതിനു വേണ്ട എന്തെങ്കിലും നടപടി നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കയാണ് അപ്പം ഇപ്പോൾ ഒരു ഏഴ് മണി ആയല്ലോ ഒരു എട്ട് മണിക്കുള്ളിൽ എങ്കിലും എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് നടത്താൻ സാധിക്കുമോ എന്നാണ് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശമൊരു ടൈമിംഗും കാര്യങ്ങളും ഇപ്പത്തന്നെ പോയി എന്നാലും ഒരു മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ പോയി ഞങ്ങൾക്ക് ഒരു ഇന്ന് അവിടെ ഫുൾ കറങ്ങി ഒരു നൈറ്റ് നൈറ്റോക്കെ ആവുമ്പോഴ്ത്തേനും തിരിച്ച് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടി പറ്റുന്ന എന്തേലും ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു